ഞങ്ങൾക്ക് ഇവിടെ പൊതു കായികപരിശീലന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പത്തേനും ടർഫ് ഉണ്ട് ടർഫിൽ പക്ഷെ ഫീസ് കൊടുക്കണം റെൻ്റ് കൊടുക്കണം ഒരു മണിക്കൂറിന് ആയിരം രൂപ തൊള്ളായിരം രൂപ അങ്ങനെയൊക്കെയാണ് നൈറ്റ് ആകുമ്പത്തേന് ആയിരം ആയിരത്തി അറുനൂറ് രൂപയൊക്കെയാകും രാവിലെ ആകുമ്പത്തേന് എഴുനൂറ് രൂപ അങ്ങനെ പല റേറ്റിലുണ്ട് അല്ലാതെ ഫ്രീയായിട്ട് കളിക്കാൻ ആണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ട് പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടുണ്ട് അല്ലാതെ താലൂക്കിൻ്റെ ഗ്രൗണ്ടായിട്ടുള്ളത് വേറെയുണ്ട് അല്ല അങ്ങനെ രണ്ട് മൂന്ന് ഗ്രൗണ്ട്സ് ഉണ്ട് പിന്നെ ഓരോ ക്ലബിനും കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ പോയി കളിക്കണം ടർഫിൽ പോയി കളിക്കണം ഗ്രീൻ ഫീൽഡ് ആണെങ്കിൽ റെൻ്റ് കൊടുത്ത് കളിക്കണം അല്ലാതെ ഓരോരുത്തരുടെ സ്ഥലങ്ങളൊക്കെയുണ്ട് പൊതുവായിട്ട് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയുണ്ട് ആരും കുഴപ്പമൊന്നും ഇല്ലാത്ത ചില പള്ളികളുടെ സ്കൂളുകളുടെ ഗ്രൗണ്ട് അങ്ങനെ ഉണ്ട് അല്ലാതെ മൈതാനങ്ങൾ മറ്റേ ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുന്ന അതുപോലെയുള്ള ഗ്രൗണ്ടുകൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫ്രീയാകും അങ്ങനെയുള്ള അടുത്ത് കളിക്കുന്നവരുണ്ട് കുറേ പേർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ